ഹലോ ഇത് എ കെ ട്രാവൽസിലെ ടൂറിസ്റ്റ് ഗൈഡ് ചാന്ദിനി മാഡം അല്ലേ ആ മാഡം ഇന്നലെ ട്രിവാൻഡ്രത്തൊരു വൺ ഡേ ട്രിപ്പിൽ ഗൈഡ് ചെയ്തിട്ട് ഇല്ലായിരുന്നോ അതിൽ ഞാനും ഉണ്ടായിരുന്നു എൻ്റെ പേര് ശങ്കർ എന്നാണ് ആ മാം ട്രിപ്പ് വളരെ നന്നായിരുന്നു ഞാൻ ഇപ്പോൾ വിളിച്ചത് ഇന്നലെ മാം നമ്മുടെ കേരളത്തിലെ റെപ്രെസെൻ്റ് ചെയ്യുന്ന ട്രഡീഷണൽ ആഡ് ഫോംസിനെപ്പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നോ അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയാൻ ആയിട്ടാണ് വിളിച്ചത് ആക്ച്വലി ഞാൻ ജനിച്ചതൊക്കെ കേരളത്തിൽ ആണെങ്കിലും പഠിച്ചതും വളർന്നതും ഒക്കെ പുറത്താണ് ഓസ്ട്രേലിയയിൽ ആണ് ഇപ്പോൾ ഞാൻ കേരളത്തെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളൊരു പ്ലാനിലാണ് ഒന്ന് വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ജില്ലകളും ഇങ്ങനെ വിസിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ആർട് ആർട് ഫോമിനെപ്പറ്റിയും മറ്റും ഡീറ്റെയിലായിട്ട് എനിക്ക് കുറച്ച് അറിയണം എന്നുണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയി അറിയാനാണ് ഞാൻ വിളിച്ചത്

ആ യെസ് മാഡം മനസ്സിലായി ഓക്കെ മാം താങ്ക് യു സോ മച്ച് ഓക്കെ ഹാവ് എ നൈസ് ഡേ മാം